നിങ്ങൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ചിത്രരചന പഠിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ചിത്രരചന ഡ്രോയിങ്ങൊക്കെ ഡ്രോയിങ്ങ് ഒരു ഒരു അവർ നമുക്ക് ഡ്രോയിങ്ങൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പഠിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും നല്ല കോളേജ് എന്ന് പറഞ്ഞാൽ ശ്രീ ശങ്കരാചാര്യ കോളേജിനെക്കുറിച്ച് അറിയാം അവിടുത്തെ വളരെ നല്ല രീതിയിലുള്ള വിവിധതരത്തിലുള്ള കോഴ്സുകളൊക്കെ ഉണ്ട് നമ്മുടെ കലാജീവിതത്തില് എന്ന് പറയുന്നത് കലാജീവിതത്തില് നേടിയെടുക്കാൻ പറ്റിയത് നമുക്ക് മ്യൂസിക്കായിട്ടും ഡാൻസൊക്കെയായിട്ടും നിരവധി കാര്യങ്ങള് ഉണ്ട് അവയൊക്കെ നേടിയെടുക്കണമെങ്കിൽ നമുക്കതിന് വീട്ടിൽ നമുക്ക് സാഹചര്യം നന്നായാൽ മാത്രമേ നമുക്കതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള സാഹചര്യം ഉണ്ടാകും കോളേ കോളേജിലൊക്കെ എത്തിയാൽ നമുക്ക് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ടാകും പിന്നെ സമയക്കുറവുണ്ടാകും അപ്പം അങ്ങനെ ഒക്കെ ഉണ്ട് പിന്നെ അല്ലേൽ ഏതെങ്കിലും നല്ല രീതിയിൽ ഇൻസ്റ്റിറ്റ്യുഷനിൽ ചേർന്ന് കൊണ്ട് അവ നേടിയെടുക്കാനാണ് ശ്ര ശ്രമിക്കുന്നത്